കേരളത്തിലെ ഒരു സുന്ദരമായ ഒരു ജില്ലയാണ് കോഴിക്കോട് അല്ലെങ്കിൽ കാലിക്കറ്റ് ആ കാലിക്കറ്റിനെ ഏറ്റവും പ്രത്യേക പ്രത്യേകമാക്കുന്നത് അവിടത്തെ നാട്ടുകാരും അവിടുത്തെ ഫുഡുകളും അതിലുപരി അവിടുത്തെ കോഴിക്കോട് ബീച്ചെന്നു പറയുന്ന ഒരു വലിയ തീരം തന്നെ ഈ കോഴിക്കോട് ജില്ലയുടെ അടുത്തുള്ള ജില്ലകളിൽ നിന്ന് ഉള്ള ആളുകള് ഉറപ്പായിട്ടും ഇടയ്ക്കിടയ്ക്ക് ആ ബീച്ച് സന്ദർശിക്കാറുണ്ടെന്നതില് യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാരനായ ഞാനും ഉൾപ്പെടെ ഒരുപാട് ആളുകള് ഇടയ്ക്കിടയ്ക്ക് ആ ബീച്ചിൽ പോകാറുണ്ട് മറ്റുള്ള ബീച്ചുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു സുന്ദരമായൊരു ബീച്ച് തന്നെയാണ് കോഴിക്കോട് ബീച്ച് അതിലുപരി അവിടുത്തെ ഫുഡുകളും വളരെ പ്രത്യേകമായ ഫുഡുകളാണ് എടുത്തുപറയേണ്ട ഫുഡുകളാണ് മലബാറേരിയ പ്രത്യേകിച്ച് ഫുഡുകൾക്ക് മറ്റും പേരുകേട്ട സ്ഥലമാണ് അതില് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ വ്യത്യസ്തമായ അവരുടെ ഫുഡ് വിഭവങ്ങള് നമുക്ക് എടുത്തുപറയേണ്ടതുണ്ട് അതുപോലെ ഈ കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് പാർക്കുകളും കായിക സൗകര്യങ്ങളും തിയേറ്ററുകളും ഒരുപാട് സാംസ്കാരിക പരിപാടികളും നടക്കാറുണ്ട് നമുക്കു പറയുകയാണെങ്കില് ഒരു വലിയ സമമ്മേളനങ്ങളോ ഒരു വലിയ റിയാലിറ്റി ഷോ അല്ലെങ്കിൽ മ്യൂസിക് ഷോ അല്ലെങ്കിൽ മേളകൾ ബുക്ക് മേളകൾ ഫെസ്റ്റിവലുകൾ ലിറ്ററേച്ചര് ഫെസ്റ്റിവലുകൾ തുടങ്ങിയ ഒരുപാട് പരിപാടികള് നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് പ്രത്യേകിച്ച് അവിടുത്തെ ബീച്ച് അതിന് എല്ലാം സജ്ജമായൊരു ബീച്ച് തന്നെയാണ് ഇവിടെ ഇതുപോലെ മേളകൾ നടക്കുമ്പോൾ ലിറ്ററേച്ചര് ഫെസ്റ്റിവലുകൾ നടക്കുമ്പോൾ ഇതുപോലത്തെ സാംസ്കാരിക പരിപാടികളിവിടെ നടക്കാറുണ്ട് അ തിയേറ്ററുകൾ നോക്കുകയാണെങ്കില് ഒരുപാട് ഏ സിയും സൗകര്യമുള്ള ഒരുപാട് തിയേറ്ററുകള് കോഴിക്കോട് ജില്ലയിലുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പാർക്കുകള് പൂളുകള് നദികള് വെള്ളച്ചാട്ടങ്ങള് തുടങ്ങിയ ഒരു സുന്ദരമായൊരു ഒരു നാടാണ് കോഴിക്കോട് ജില്ല ആ ജില്ലയിലിതുപോലെ അവര് തന്നെ ഒരുപാട് കായിക പ്രവർത്തനങ്ങള്ക്കും അതുപോലെ തന്നെ മറ്റുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും ഉല്ലാസങ്ങൾക്കെല്ലാം അവർ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങളും കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ ഒരു സുന്ദരമായ ഗ്രൗണ്ടാണ് ഫുട്ബോൾ ഗ്രൗണ്ടുകളുണ്ട് അതിലുപരി തടാകങ്ങള് കൊച്ചുകൊച്ചു പാർക്കുകള് തുടങ്ങി ഒരുപാട് സാംസ്കാരികമായും കലാപരമായിട്ടും കായികപരമായിട്ടും എല്ലാ കാര്യങ്ങളുമുള്ള ഒരു ഒരു ജില്ലയാണ് കോഴിക്കോട് എന്നുള്ളത്